എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ എലി പാമ്പ് അങ്ങനെ പാമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയെല്ലാം ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ എലീൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എലി ഒരുപാടുണ്ട് ഈ വീട്ടിൽ അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്താണെന്ന് വച്ചാൽ എലിക്കത്രിക വയ്ക്കുകയാണ് ചെയ്യുന്നത് എലിക്കത്രിക വെക്കും അല്ലെങ്കിൽ വിഷം വെയ്ക്കുകയോ എന്തെങ്കിലുമാണ് കൂടുതലും വിഷം വെക്കാറില്ല കാരണം വിഷം വച്ച് കഴിഞ്ഞാൽ അത് എലി എവിടെയെങ്കിലും ചത്ത് ചീഞ്ഞ് കിടന്നാൽ അത് ഭയങ്കര സ്മെല്ലാവും പിന്നെ പുഴുവടിക്കും അതെവിടേലും കാണാത്തിടത്ത് എങ്ങാനും ആണെങ്കിൽ നമുക്ക് കണ്ടൂപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ വിഷം വെക്കല് കുറവാണ് നമ്മള് കൂടുതലും ചെയ്യുന്നത് ഒരു എലിക്കത്രിക എടുത്ത് അതില് തേങ്ങയോ അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന എന്തേലും ഒരു സാധനം എടുത്ത് വച്ചിട്ട് അത് കൂടുതലായിട്ട് വരുന്നതെവിടെയാണോ അവിടെ കൊണ്ട് വെയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ വന്ന് വയ്ക്കുമ്പോൾ ഇതിനത്ത് തിന്നാൻ വരുമ്പോൾ എലി കത്രികയിൽ കുടുങ്ങി അത് ചത്ത് പോകുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മള് കൂടുതലായിട്ടും എലികളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പിന്നെയെന്ന് പറയുന്നത് പാറ്റ പാറ്റയെന്ന് പറയുന്നത് പാറ്റേൻ്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ചോക്കുകളും പിന്നെ ഹിറ്റിൻ്റെ സ്പ്രേകളൊക്കെ കിട്ടും അതൊക്കെ അടിച്ചാൽ നമുക്ക് ഇങ്ങനെ പാറ്റ ഉറുമ്പ് അതിൻ്റെ എല്ലാ ശല്യം ഭയങ്കരമായിട്ട് കുറഞ്ഞ് കിട്ടും ഒരൊറ്റ സ്പ്രേ കൊണ്ട് തന്നെ നമുക്ക് അത് ഭയങ്കരമായിട്ട് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഇടയിലിങ്ങനെ ഈ നമ്മുടെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിൻ്റെ ഡ്രോയറിൻ്റെ ഇടയിലും അതിൻ്റെ ഇടയിലൊക്കെയാണ് കൂടുതലായിട്ടും പാറ്റകളുടെ ഇതൊക്കെ കാണുന്നത് അപ്പോൾ നമ്മളെന്താക്കും അവിടെ കൊണ്ടുപോയി ചോക്ക് വരക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ശല്യം നമുക്ക് കുറഞ്ഞ് കിട്ടാറ് പതിവാണ് അങ്ങനെയാണ് നമ്മളിപ്പോൾ വീട്ടിൽ ഇങ്ങനെയുള്ള പാറ്റേന്റേയും എലീന്റേയും എല്ലാത്തിന്റേയും ശല്യം ഭയങ്കരമായിട്ടുള്ള ശല്യം ഒഴിവാക്കുന്നത്